ഞാൻ ഓർഡർ ചെയ്ത ഭക്ഷണം ആയിരുന്നില്ല എനിക്കു കിട്ടിയത് ഞാൻ നോൺ വെജ് ആയിരുന്നു ഓർഡർ ചെയ്തത് എനിക്കു വെജാണ് കിട്ടിയത് അതു പിന്നെ പലതും മറിഞ്ഞിരുന്നു കറിയൊക്കെ അവിടെനിന്നു കൊണ്ട് വന്നപ്പോൾത്തന്നെ എല്ലാം മറിഞ്ഞു കവറിൽക്കൂടെ ഒക്കെ പുറത്തൊക്കെ ആയിരുന്നു കുറേ കറികൾ ഒക്കെ ഭയങ്കര എണ്ണയായിരുന്നു എല്ലാ ഭക്ഷണത്തിനും പിന്നെ ഞങ്ങൾ അത് തിരിച്ചയച്ചു ഞാൻ നോൺ വെജ് ആയിരുന്നു വേണ്ടത് അപ്പോൾ വെജ് ആയിരുന്നു കിട്ടിയത് അതുകൊണ്ട് പിന്നെ സാധനങ്ങൾ ഒന്നും അത്ര ഫ്രഷ് ആയിരുന്നില്ല എല്ലാം ഒരു പഴക്കം ചെന്നൊരു രൂപത്തിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്